ഒരു മാസം മുന്നെയാണ് ഞാൻ ഈ മൊബൈൽ ഫോൺ മേടിച്ചത് അതായത് ഈ പോകോ എക്സ് ത്രീ മേടിച്ചത് അപ്പോൾ മേടിക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പരസ്യത്തിലെല്ലാം അവർ അവകാശപ്പെട്ടത് വച്ച് നീണ്ട ബാട്ടറി ലൈഫും നല്ല ഒരു ക്യാമറയും നല്ല കൂളിംഗ് സിസ്റ്റവും അത്കൊണ്ട് ചൂടാവാത്ത ഒരു എത്ര നേരം ഉപയോഗിച്ചാലും ചൂടാവാതെ വർക്ക് ചെയ്യുന്ന ഒരു ഫോൺ ഈ പ്രതീക്ഷയിൽ എല്ലാമാണ് ഞാൻ അത് മേടിച്ചത് പക്ഷേ എനിക്ക് ഓർഡർ കിട്ടി കഴിഞ്ഞപ്പോൾ ഡെലിവെറി ചെയ്തപ്പോൾ പാക്കേജിങ്ങ് തന്നെ പ്രശ്നമായിരുന്നു പാക്കേജിങ്ങ് മോശമായ രീതിയിലായിരുന്നു ഫോൺ പാക്കേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഫോണിൻ്റെ സൈഡിൽ ഒരിത്തിരി പെയിൻ്റ് പോയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞു നോക്കിയപ്പോൾ ആദ്യത്തെ തവണ തന്നെ ഫോൺ ഓൺ ആയി വരാൻ തന്നെ ഒരുപാട് സമയം എടുത്തായിരുന്നു സാധാരണ ഫോൺ ഓണാവാൻ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുത്തായിരുന്നു പിന്നെ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം രണ്ടു മൂന്നു ദിവസം വലിയ തെറ്റില്ലാതെ ഉപയോഗിക്കാൻ പറ്റി പിന്നെ ഓരോ നാളു കഴിയും തോറും ബാറ്ററിയുടെ പെർഫോമൻസ് മോശമായി വരുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ അയ്യായിരം എം ഐ എച്ച് ബാറ്ററി ആണ് അവകാശപ്പെട്ടിരുന്നത് അപ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ട ബാറ്ററി ആയിരുന്നു എന്നാൽ എനിക്ക് ഒരുപാട് നേരം ഫോണ് ഉപയോഗിക്കാനുള്ള അത്രയും ബാറ്ററി കിട്ടുന്നില്ല അവർ ഒരു എഴ് എട്ട് മണിക്കൂറിൻ്റെ എങ്കിലും സ്ക്രീൻ ഓൺ ടൈം കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ ആണ് പരമാവധി ഫോണ് ഉപയോഗിക്കാൻ കിട്ടുന്നത് അപ്പോഴത്തേക്കും ബാറ്ററി കഴിയുകയാണ് അത്പോലെ തന്നെ ഒരു അര മുക്കാൽ മണിക്കൂർ ഫോൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല നന്നായിട്ട് അത് ചൂടാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും പോരാതെ ഞാൻ ഈ ഫോൺ മേടിച്ചേൽ മെയിൻ മെയിനായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല ഒരു ക്യാമറ പെർഫോമൻസ് കിട്ടും എന്ന് അവർ അവകാശപ്പെട്ടത് കൊണ്ടാണ് എന്നാൽ ക്യാമറ പകൽ സമയത്ത് വലിയ തെറ്റില്ലാത്ത ക്യാമറ ഫോട്ടോ എടുക്കാൻ പറ്റുമെങ്കിലും രാത്രി ഒക്കെ ആവുമ്പോൾ ഭയങ്കര വളരെ മോശം ഫോട്ടോസ് ആണ് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് രാത്രി എടുക്കുന്ന ഫോട്ടോ ഒന്നും ഒന്നും ക്ലിയറും അല്ല വെളിച്ചമൊന്നും ഒട്ടുമില്ല നെയിറ്റ് ടൈം ഫോട്ടോഗ്രാഫിയൊക്കെ വളരെ മോശമാണ് പിന്നെ ഒരു മാസം ഉപയോഗിച്ചപ്പോൾ ഉപയോഗിച്ചപ്പോഴേക്കും ആദ്യം വലിയ ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ലേലും ഇപ്പോൾ ഫോൺ നന്നായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട് നല്ല പതുക്കെയാണ് എല്ലാം ആപ്പൊക്കെ എടുത്താലും തുറന്ന് തരാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് പിന്നെ ബിൾഡ് ക്വാളിറ്റിയാണ് മറ്റൊരു പ്രശ്നം ഫോൺ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മേശേമന്ന് കൈയിൽ നിന്ന് ഒന്ന് തന്നെ തന്നെ ടേബിളിൽ നിന്ന് വീണപ്പോഴേക്കും അതിൻ്റെ സൈഡിൽ നിന്ന് ആ ഗ്ലാസ്സ് മൊത്തം ഇങ്ങോട്ട് ഒരു വിള്ളൽ വീണ് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചായിരുന്ന ഫോൺ എൻ്റെന്ന് പല രീതിയിലും താഴെ വീണിട്ടുള്ളത് പക്ഷെ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ഇതൊരു പുത്തൻ ഫോണായിട്ട് ഇതൊന്ന് ചെറിയ ഒരു ഉയരത്തിൽ നിന്ന് വീണപ്പോൾ തന്നെ നന്നായി അത് പൊളിഞ്ഞു പിന്നെ അതു പോലെ തന്നെ ഞാൻ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് അറിയാനായിട്ട് ഞാൻ കസ്റ്റമർകെയറിൽ വിളിച്ചായിരുന്നു ഈ ഫോണിൻ്റെ കമ്പനിയുടെ പക്ഷെ എന്നാൽ അവരുടെ അടുത്ത് നിന്ന് വളരെ മോശമായ പ്രതികരണമാണ് കിട്ടിയത് അവർ കോൾ എടുത്തെങ്കിലും എന്നെ വേറെ ആളുടെ അടുത്തേക്ക് കോൾ റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടിരുന്നു കുറേ തവണ അവസാനം ഒരാളുടേൽ എത്തിയെങ്കിലും ആളെ കൊണ്ട് വലിയ സഹായം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ കുറേ മോശം അനുഭവമാണ് എനിക്ക് ഈ ഫോൺ മേടിച്ചപ്പോൾ ഉണ്ടായത് അപ്പോൾ ആരെങ്കിലും ഇ ഫോൺ മേടിക്കാൻ വരികയാണെങ്കിൽ ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ അവരോട് പറയും ഈ ഫോൺ മേടിക്കണ്ടാന്ന്